എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി നാന്നൂറ്റി മുപ്പത്തി നാല് ഏഴ് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി അഞ്ച് ആറ് ലക്ഷത്തി അൻപത്തയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തഞ്ച് അഞ്ച് ലക്ഷത്തി എഴുപത്തി നാലായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്നു രണ്ട് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട്